ഹലോ നിങ്ങൾ എവിടെയാണ് ഞാന് നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ നിൽക്കുകയാണ് കണ്ടെത്താന് സാധിക്കുന്നില്ലല്ലോ പിന്നെ നിങ്ങൾ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഇവിടെ ഒരു കടയുടെ അടുത്ത് നിൽപ്പുണ്ട് നമ്മുടെ മാതൃഭൂമി എന്ന് എഴുതിയിരിക്കുന്ന കട ഉണ്ടല്ലോ അതിനടുത്തുണ്ട് ഒരു ടീ ഷോപ്പ് ആണ് അതിന്റെ മോളില് മാതൃഭൂമി എന്നുള്ള ഒരു ഫ്ലെക്സ് ബോര്ഡ് വെച്ചിട്ടുണ്ട് അതിനടുത്തായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ വരുമ്പഴത്തേക്ക് ആ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഈ പോയിൻ്റിലേക്ക് ഒന്ന് എത്താമോ കാരണം ഞാൻ ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ഈ മാതൃഭൂമി എന്ന് ഫ്ലെക്സ് വെച്ചിരിക്കുന്ന കടയുടെ മുമ്പിലേക്ക് ദയവ് ചെയ്ത് എത്തുക ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്